മതപരമായിട്ട് എല്ലാവര്ൻ്റേയും ഡിഫ്റെൻ്റായിരിക്കും ഇപ്പോൾ ഹിന്ദുക്കൾടെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു വീട് പണിയാണ് പറയുമ്പമ്മള് ഹോമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഹോമം ചെയ്ത് പൂജാരിനെ കൊണ്ടുവന്ന് തീർത്ഥം ഒക്കെ തളിയിച്ച് പാലുകാച്ചി അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മറ്റുള്ള വീട്ടിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഹോമങ്ങളൊന്നും നടത്തുന്ന ആ ഒരിതില്ല പിന്നേ പിന്നെന്താണ് പിന്നെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാ ആ മുസ്ലിംസാണെന്ന് പറഞ്ഞ ഇപ്പോൾ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയുണ്ട് ക്രിസ്മസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യ്ണ്ട് ക്രിസ്ത്യൻസാണെങ്കിലും സ് ക്രിസ്മസ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യും പക്ഷേ അവരിൻ ഞങ്ങളുടെ ഇതിലെന്ന് പറഞ്ഞ ഹിന്ദുക്കൾടെ ഒരു ഇതിലെന്ന് പറഞ്ഞ് പറഞ്ഞാൽ അവര് ഓണം വിഷു അതൊക്കെയാണ് കൂടുതലായിട്ടും സെലിബ്രേറ്റ് ചെയ്യാൻ അതന്നേ അ അത് നല്ല എല്ലാവർക്കും വീട്ടിലെ എല്ലാവരും കൂടിട്ടന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ വെക്കുന്ന ഫുഡാണെങ്കിലും അവര് വെക്കുന്ന ഫുഡാണെങ്കിലും എൻ്റേർലി ഡിഫ്റെൻ്റായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ മൊത്തത്തില് ജാതിപരമായിറ്റ് വേർതിരിക്കുമ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന സിസ്റ്റം വേറെ തന്നെയായിരിക്കും